സ്റ്റാമ്പുകൾ പണ്ട് കാലത്തുണ്ടായിരുന്ന ഇല്ലൻറ്റ് ഇല്ലൻറ്റ് ഉണ്ടായിരുന്നു ആ ഇല്ലൻ്റിൽ വരുന്ന ഇങ്ങന കത്തയക്കുക ഒക്കെ ചെയ്യുമ്പം നമുക്ക് തിരിച്ചു വരുന്ന കത്തിന് കത്തിൽ ഒക്കെ ഒട്ടിച്ചു വരുന്ന സ്റ്റാമ്പ് ആ സ്റ്റാമ്പ് ഒക്കെ പറിച്ചെടുത്ത് കൊണ്ടന്ന് ഒരു വല്യൊരു ബുക്കിൻ്റെ പേപ്പറെടുത്ത് ഇട്ട് ആ വരയിടാത്തൊരു പേപ്പറ് എടുത്തിട്ടുണ്ടല്ലോ ആ അതേല് എനിക്ക് ഇങ്ങനെ വരുന്ന സ്റ്റാമ്പുകളെല്ലാം പറിച്ചു വച്ചു വേറെ പശ വച്ചു ഒട്ടിച്ച് വയ്ക്കുമായിരുന്നു അങ്ങനെ വച്ചിട്ട് കുറച്ചു നാൾ കഴിയുമ്പം

അതെടുത്ത് നോക്കും അങ്ങനെ അങ്ങനെ സ്റ്റാമ്പുകൾ എടുക്കുമായിരുന്നു പിന്നെ ചെറിയ ഈ കവറിലൊക്കെ വരുന്ന കവറോ സ്റ്റാമ്പ് ഒട്ടിച്ച റെവന്യൂ സ്റ്റാമ്പുകളും അതൊക്കെ വരുന്നതൊ ക്കെ എടുത്ത് അങ്ങനെ വച്ചിരുന്നു കാണാനൊക്കെ ആയിട്ട് എടുക്കുമായിരുന്നു അതൊരു കുട്ടൊരു ബുക്കിൻ്റെ വലിയ പേപ്പറിൽ എല്ലാം ഒട്ടിക്കുന്നത് അത് അങ്ങനെ ഒട്ടിച്ചു വച്ചു വച്ചിട്ടുണ്ട് പിന്നെ ചിലപ്പൊഴൊക്കെ എടുത്ത് കാണും പിന്നെ ആരെങ്കിലും അങ്ങനെയുള്ള ശേഖരം സ്റ്റാമ്പ് ശേഖരിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു വരികയാണെങ്കിൽ അങ്ങനെ കൊടുക്കും അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു എന്നാൽ മറ്റു രീതികളെന്ന് പറഞ്ഞാൽ

അതൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇത് എടുത്തിപ്പ ഒരു കുടുക്ക പോലെ ഉണ്ടാക്കും അപ്പം അതിനകത്ത് എന്നിട്ട് അത് ഇട്ട് വയ്ക്കും എന്നിട്ട് അത് എടുത്ത് കുറേ ഇപ്പോൾ അതേപ്പറ്റി അങ്ങനെ പഴയ സ്റ്റാമ്പുകൾ പഴയ ഈ നാണയ തുട്ടുകളൊക്കെ വച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ കൊടുക്കാലോ എന്നോർത്ത് അതൊക്കെ ശേഖരിച്ചു വച്ചിട്ടുണ്ട് ഓരോ പുസ്തക ത്തിൽ ഒട്ടിക്കും പേപ്പറിൽ ഒട്ടിക്കും അങ്ങനെ ഒക്കെ